എൻ്റെ അടുത്ത് മൂന്നാല് ഐറ്റം ഉണ്ട് എസ്ബിഐ കാനറാ ബാങ്ക് ഗ്രാമീൺ ബാങ്ക് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംമ്കളുണ്ട് പിന്നെ എനിക്ക് പൈസക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വന്നിട്ടുള്ളത് എനിക്ക് യാത്ര ചെയ്യാനോ പഠനാവശ്യത്തിനുമാണ് എൻ്റെ ബാങ്കിങ് കസ്റ്റമർ സർവീസ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ വളരെ മോശകരമാണ് അവിടെ കൃത്യനിഷ്ഠതയും ഇല്ല വെറുതെ ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞ് നമ്മടെ പൈസകളെല്ലാം അവർ എടുക്കുകയാണ് തട്ടിപ്പാണ് അവിടെ നടക്കുന്നത് എനിക്ക് അത് ഒട്ടും യോജിക്കുന്നില്ല ഞാൻ അതിനോട് തീരെ യോജിക്കുന്നില്ല